ആറ് ഒന്ന് രണ്ടായിരത്തി നാല് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഒമ്പത് പത്ത് അഞ്ച് രണ്ടായിരത്തി നാല് പതിനൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന്